ആ ഞാൻ ഫ്ളിപ്കാർട്ടിന്ന് എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് ഒരു ഷർട്ട് എടുത്തിരുന്നു പക്ഷെ അത് അതിൻ്റെ സൈസ് കറക്റ്റല്ല എടുത്തിട്ട് വയർഭാഗമൊക്കെ കുറച്ച് ഫിറ്റായിട്ട് ഇരിക്കുന്നു അപ്പോള് എനിക്കതൊന്ന് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു റിട്ടേൺ അതിൻ്റെ വേറെ അതിൻ്റെ പാക്കേജ് ഒന്നും ഞാൻ പൊട്ടിച്ച് മാറ്റിയിട്ടില്ല പിന്നെ അതുതന്നെയുമല്ല ഞാൻ അത് പൊട്ടിക്കാൻ നേരം അതിൻ്റെ ഇത് ഒരു വിഡിയോയും ഒക്കെ എടുത്തു വച്ചിട്ടുണ്ട് അപ്പോള് അത് റിട്ടേൺ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വച്ചാല് ചെയ്താൽ അത് മാറ്റിത്തരുമോ അതിനെ അല്ലെങ്കില് അതിൻ്റെ കറക്റ്റ് സൈസിനുള്ളത് നമുക്ക് തിരിച്ച് കിട്ടുമോ എന്നുള്ളതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു